ഒരു ഷർട്ട് വേണമായിരുന്നു ഡബിൾ എക്സൽ ഡബിൾ എക്സൽ ബ്രൗൺ കളർ അല്ല അഹ് സിംഗിൾ പോക്കറ്റ് ബ്രാൻഡഡ് കമ്പനിയുടെ വേണം ആഹ് ആഹ് ആഹ് ഫാമിലി പാക്കേജ് ആണോ ഫാമിലി പാക്കേജ് ആണ് എന്താ റേറ്റ് വരുന്നത് അങ്ങനെ അല്ല എത്രയ്ക്ക് എത്ര മുതൽ എത്ര വരെയാണ് റേറ്റ് വരുന്നത് ഫാമിലി പാക്കേജിലെ ഓഫർ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ ഷർട്ട് എടുക്കാം ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ ആയിക്കോട്ടെ പിന്നെ ആഹ് എനിക്കൊരു സാരി വേണം കുട്ടികൾക്ക് ചുരിദാറ് ഫ്രോക്കും വേണം അതെ കോഡാണ് കോഡാണ് ബ്രൗൺ കളർ കോഡാണ്

ഷർട്ട് ഡബിൾ എക്സൽ സോറി എക്സൽ സാരി ബ്രൗൺ കളർ ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ എടുത്തോ ബ്രൗൺ കളർ ഓവർ വർക്ക് ഇല്ലാത്തത് നോക്കി പിള്ളേർക്ക് ഫ്രോക്ക് എടുക്കാം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്കും ഒരു ഏഴ് വയസ്സുള്ള കുട്ടിക്കും പറ്റിയത് ആ പായ്ക്ക് ചെയ്ത് വച്ചോളൂ ഞാൻ എൻ്റെ ആളെ വിട്ടേക്കാം ഞാൻ നാളെ ഒരു ഉച്ച ആകുമ്പോൾ എത്തുന്നതായിരിക്കും അവിടെ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി താങ്ക് യൂ